ആ ചേട്ടാ ഞാനൊരു അൽഫാമ് പെരി പെരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതിന്റൊപ്പം തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു മയോണൈസ്സ് അതുപോലെ തന്നെ രണ്ട് ബോട്ടിൽ പിക്കിള് ചെറിയ ബോട്ടില് പിക്കിള് പിന്നെ വന്നിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ ഇപ്പഴാണ് ഇപ്പം ആ പക്ഷേ അത് വന്നപ്പോൾ അതില് മയൊണൈസ് ഇല്ല ഡെലിവറി ബോയ് പറഞ്ഞത് അവിടുന്ന് ഹോട്ടല്ന്ന് തന്നത് അങ്ങനേ പിക്ക് ചെയ്തിട്ട് കൊണ്ടു വന്നെന്നാണ് പറയുന്നത് പക്ഷേ ഇതില് മയൊണൈസ് ഇല്ല എന്താ ചെയ്യുക അപ്പോൾ ഇല്ല ഇല്ല ആള് പറയുന്നത് അവിടന്ന് കൊണ്ട് വന്ന് അങ്ങനേ തന്നു എന്നാണ് പറയുന്നത് ഇല്ലില്ല ഇതിപ്പോൾ ഞങ്ങള് എങ്ങനെ കഴിക്കാനാ ഇത് മയോണൈസ് ഇല്ലാതെ ഒന്നില്ലേ നിങ്ങള് പുതിയ പ്രോഡക്റ്റ് തരണം അല്ലാന്ന് വെച്ചാൽ ഇത് തിരിച്ച് എടുക്കണം റീഫണ്ട് ചെയ്ത് തരണം കാശ് അതെ അതെ ഞാനീ ഡെലിവറി ബോയിൻ്റെ കയ്യില് കൊടുത്തു വിടാം ഈ പ്രോഡക്റ്റ് ഒന്ന് റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങള് പുതിയത് കൊടുത്തു വിടണം കേട്ടോ ശരി ശരി